ഒരുപാട് ഒരുപാട് ഉപകാരമായിട്ടോ കാരണം ന്താച്ച ഞാനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ബസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കാളയവക്ക് കയറി കാളയാവ്ന്ന് പിന്നെ ബസില്ലാത്തപ്പം ആകെ ടെൻഷൻ അടിച്ച് നിക്കേനു പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പോട്ടെ എന്നു വിചാരിച്ചപ്പോഴാണ് നിങ്ങളെ എനിക്ക് കിട്ടിയത് എന്തായാലും എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് എന്നേയും എൻ്റെ കുട്ടികളെയും നിങ്ങൾ വീട്ടിൽ സുരക്ഷിതമായ് എത്തിച്ചു കാരണം ഇന്നത്തെ കാലത്തൊന്നും ഇത്തരം രീതിയിലുള്ള മനുഷ്യന്മാരുണ്ടാവില്ല എന്തിനും ഏതിനും ഇപ്പോൾ ഒരു പൈസൻ്റെ കാര്യത്തിലായാലും ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണെങ്കിലും പല തരത്തിലുള്ള ചൂഷണങ്ങളാണ് ആൾക്കാർ അപ്പോൾ നിങ്ങൾ ഞാനും നിങ്ങളും ആദ്യമായിട്ട് കാണണമെങ്കിലും നിങ്ങൾ എന്നെ നല്ല രീതിയിൽ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങൾ എന്നെ കൊടന്നാക്കി

നിങ്ങൾ അതൊന്നും ചെയ്തില്ല ഞാൻ അത് പിന്നേയും പിന്നേയും പറയേം പറഞ്ഞു അപ്പോൾ അയെന്നെ ആ ഒരു പൈസയും തന്നെ നല്ല പാകത്തിനാണ് നിങ്ങൾ വാങ്ങിയത് ഏതാലും എ അന്ന് എനിക്ക് തോന്ന്വ നിങ്ങളെ പോലത്തെ ഒരാളെ ഞാൻ കണ്ടു മുട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിനു എന്തായാലും പടച്ചോൻ കൊട്ന്നു തന്ന ക മുന്നിക്കാണ് കോടുന്നു തന്നിക്കുണുന്നുന്നന്നെ എനിക്ക് അത് പറയാനുള്ളത് എന്തായാലും വലിയ ഉപകാരം